എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്നിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നൊരു വിദ്യാർഥിയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർഥിനിയാണ് ഡിഗ്രി കഴിഞ്ഞ് പിജിയും കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഞാനീ ഇത്രയും കാലം നിന്ന് പഠിച്ചതിൽ എനിക്ക് എൻ്റെ ഏറ്റവും മികവ് പുലർത്താൻ പറ്റിയത് എൻ്റെ പഠനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനെന്ന് പറയുന്ന ഞാൻ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് പത്താം ക്ലാസ്സിൽ എനിക്ക് ഫുള്ള് എ പ്ലസ് കിട്ടീട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര എന്താണ് പറയുന്നത് എനിക്ക് എന്നോട് തന്നെ ഒരു ഒരു ബഹുമാനം തോന്നിയ ഒരു ദിവസമാണ് കാരണം എന്താണെന്നുവെച്ചാൽ അത്രയും കാലത്തിനിടക്ക് ഒരുപാട് പൈസേൻ്റെ ആവശ്യങ്ങളും എല്ലാം വന്നിട്ട് ഒരുപാട് ഞങ്ങളത്യാവശ്യം വല്യ പൈസയുള്ള കുടുംബത്തിലൊന്നും അല്ലെങ്കിലും ഒരു മീഡിയം ഫാമിലിയിലാണ് അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നെട്ടോട്ടം ഓടുന്നത് എൻ്റെ അച്ഛൻ നെട്ടോട്ടം ഓടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷക്ക് എനിക്ക് ഇത്രയും മാർക്ക് കിടിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാര് എന്നെ എന്നേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ വീട്ടുകാർക്കായിരിന്നു കാരണം അവരുടേത് എനിക്ക് അവര് ആഗ്രഹിച്ച പോലൊരു മാർക്ക് നേടാൻ പറ്റി കാരണം ഏതച്ഛനും അമ്മയ്ക്കും അന്നവര് സന്തോഷത്തോടെ നാലാൾക്കാരുടെ മുമ്പിൽ പറയുന്നത് കേട്ടു എൻ്റെ മകൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടെന്ന് അത് അന്നവര് അവിടെ തല ഉയർത്തി നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണു ചെയ്തത് അപ്പോൾ അത് എന്നേയും ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരും ഇത്രയും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണല്ലോ അത് അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് നേടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ് അവർക്ക് പൈസേൻ്റെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുക ഒരു അവസ്ഥയിലല്ല ഞാൻ ഇപ്പോഴും പഠിക്കുന്ന ഒരു വിദ്യാർഥിനിയാണ് എങ്കിൽ പോലും ഞാൻ പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു എന്നവർക്ക് എല്ലാരുടെ മുന്നിലും നേരിട്ട് പറയാൻ പറ്റുന്നത് അവർക്ക് അവർക്ക് കിട്ടുന്ന നേട്ടമല്ല അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകഴിഞ്ഞിട്ട് പ്ലസ് ടുവിലാണെങ്കിൽ എനിക്ക് കുറച്ച് മാർക്ക് കുറവ് ഉണ്ടായിരുന്നു അത് ഞാൻ ഡിഗ്രി എത്തിയപ്പോൾ അന്നും അവര് എന്നെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അവര് അന്നും എന്നും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡിഗ്രി എത്തിയപ്പോഴാണെങ്കിലും ഓരോ വട്ടം ഓരോ ഇതിനാണെങ്കിലും മാർക്ക് കിട്ടുമ്പോൾ ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറയും അപ്പോഴൊക്കെ മാർക്ക് കിട്ടുമ്പോഴും ഓരോ സെമ്മിലെ മാർക്ക് കിട്ടുമ്പോഴും അവരിങ്ങനെ വീട്ടുകാരും കുടുംബക്കാരുമൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും അവൾക്ക് ഇത്രയും മാർക്കുണ്ട് ഇത്ര പേഴ്സെൻ്റേജ് ഉണ്ട് അതെൻ്റെ ലൈഫില് എനിക്ക് കിട്ടിയ വല്യൊരു നേട്ടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്